ചില പ്രത്യേക മൊബൈൽ ഗെയിമുകളായ ഫ്രീ ഫയർ ബി ജെ എം ആയി അഥവാ ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യ തുടങ്ങിയ ഗെയിമുകളോടൊക്കെയുള്ള അമിതമായ ഭ്രമം കുഞ്ഞുപിള്ളേരിലും അതുപോലെത്തന്നെ മുതിർന്നവരിലും അപകടകരമാണ് ഈ ഗെയിം കൂടുതൽ കൂടുതൽ കളിക്കുന്നതു വഴി ഇതിനോടുള്ള അഭിനിവേശം കൂടുകയും കൂടുതൽ സമയം ഈ ഗെയിമുകൾക്ക് പുറകെ നടന്നു സമയം കളയാനും അവർ മുതിരുന്നു ഇങ്ങനെയുള്ള ഇതു വളരെ അപകടകരമാണ് തുടക്കത്തിൽ കുറച്ചു കുറച്ച് ആയിരിക്കും ഇവർ ഗെയിം കളിക്കുന്നത് പിന്നീട് ഇവർ പത്തും പതിനഞ്ചും മണിക്കൂർ വെച്ച് ഇത് കളിയ്ക്കാൻ തുടങ്ങും പിന്നീടിത് മാനസിക നിലയെ തന്നെ ബാധിക്കുന്നതാണ് ഇതു കളിച്ചു കളിച്ച് ഇതവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുകയാണ് അപ്പോൾ ഒരു ഗെയിമിൽ തോറ്റാൽ പോലും സങ്കടം മുഴുവൻ വന്ന് ഇവർ ആത്മഹത്യക്കു വരെ മുതുകാൻ സാദ്ധ്യതയുണ്ട് ഇതു വളരെ അപകടം പിടിച്ചൊരു പരിപാടി ആണെങ്കിലും മാതാപിതാക്കളും മുതിർന്നവരും പിള്ളേർ വഴക്കു പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഗെയിമുകൾ അവർക്ക് വെച്ചു കൊടുക്കുന്നത് ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ അവർ ഇതിനോട് അമിതമായ ഭ്രമം തോന്നുകയും ഇതിനു പുറകേ ഭ്രാന്തമായി നടക്കുകയും ചെയ്യുന്നു ഇതു കുറയ്ക്കുവാനായി ഗവൺമെൻ്റിൻ്റെ ഭാഗത്തു നിന്ന് അല്ലാണ്ട് വീട്ടുകളിൽ നിന്നും ചില മുറകളൊക്കെ സ്വീകരിച്ചാൽ മതി ഉദാഹരണത്തിന് ഫോൺ കൊടുക്കുന്നത് പിള്ളേരെ കൊണ്ട് കുറച്ച് കാണാൻ പോകുകയും ചെയ്യുക സിനിമ കാണാൻ പോകുക അങ്ങനെയുള്ള മാർഗ്ഗങ്ങൾ ഒക്കെ സ്വീകരിക്കുക കൂടുതലും മാതാപിതാക്കളും ബന്ധുക്കളുമായി ഇടപഴകുന്നത് ഇതിനോടുള്ള ഭ്രമം കുറയ്ക്കാൻ സഹായിക്കുന്നു അവരോടു സംസാരിക്കാനോ അവരോടു സമയം ചിലവഴിക്കാനോ ആളില്ലാത്തതു കാരണമാണ് അവരിതിനോട് ഭ്രമം കാണിക്കാൻ സാദ്ധ്യതയുള്ളത് അവരെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നു കണ്ടാൽ അവരിതിനോടുള്ള ഭ്രമം തന്നെ നിർത്തുന്നതാണ് ഇതുകൂടാതെ നല്ല രീതിയിൽ ടീച്ചർമാരൊക്കെ ഇവരോട് ഇട ഇടപഴകുകയും നല്ല രീതിയിൽ സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാകുകയും ചെയ്താൽ ഇതു മാറാവുന്നതാണ് മൊബൈൽ ഫോണിലെ ഗെയിമുകൾ ഒഴിവാക്കി നേരിട്ട് പോയുള്ള കളികൾ ക്രിക്കറ്റ് ഫുട്ബോൾ പോലെയുളള കളികൾ നേരിട്ട് കളിക്കുമ്പോൾ അതവരുടെ ആരോഗ്യത്തിന് നല്ലതാണ്